ആ ഞാൻ ഒരു ടൂറിസ്റ്റർ ആണ് എനിക്ക് നിങ്ങൾ സാറിൻ്റെ പേര് എങ്ങനെയായിരുന്നു ആ സാറ് ഒരു കേര കർഷകനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ആ സാർ ഈ കേര കൃഷിയെ കുറിച്ച് ഒരു വിശദമായിട്ടുള്ള ഒരു വിവരം എനിക്ക് ഒന്നു പറഞ്ഞു തരാൻ പറ്റുമോ നമ്മൾ ഈ എന്തിനുവേണ്ടിയാണ് ഈ ഈ ഇത് ഈ കൃഷി നടത്തുന്നത് എന്താണ് അതുകൊണ്ടുള്ള ഗുണം ജനം ഒരു ഒരാൾക്ക് എന്ത് എന്ത് ഗുണമാണ് അതുകൊണ്ട് കിട്ടുന്നത്

ഓക്കെ സാറെ ഈ കോക്കനട്ട് ഓയില് കൊളസ്ട്രോൾ കൂട്ത്ത് കൂടുന്നു എന്നു പറയുന്നത് ശരിയാണോ സാറേ

അപ്പോൾ ഇതിലെ ഈ തേങ്ങ ഒരു തെങ്ങിൽ തേങ്ങ പിടിക്കാൻ എത്ര വർഷം സമയമെടുക്കും

ആ ആ ആ ആ ആ അത് ശരി ആ

ഉവ്വാ ആ ആ ആ സാറെ അതി ചെല്ലികുത്തിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ സാറെ ഈ

ആ അ ആ ആ സാറെ ഇപ്പം മാർക്കറ്റിൽ തേങ്ങയ്ക്ക് എന്തോ വില കിട്ടും സാറെ നമ്മുടെ മാർക്കറ്റിൽ കിലോയ്ക്ക് ആ

നമ്മൾക്ക് ഈ